നമ്മളിപ്പം എന്തായാലും ഒരു ട്രിപ്പ് പോകാനക്കെ തീര്മാനിച്ചിരിക്കുവല്ലേ അപ്പോൾ ഒരു കാര്യം ചെയ്യണം നമ്മൾ എല്ലാവരുടെയും പാസ്പ്പോട്ടൊന്ന് നോക്കണം പാസ്പ്പോട്ട് നോക്കുമ്പം ഇനിയും നമുക്ക് ടൈമുണ്ട് പോകാൻ വേണ്ടി അപ്പോൾ പാസ്പ്പോർട്ടിൽ എടുത്തിട്ടുള്ളവരുടെത് എക്സ്പെയറായിട്ടുണ്ടോന്ന് എല്ലാവരും ഒന്ന് നോക്കുക അല്ലാത്തവരക്കെ പുതിയതായിട്ട് പാസ്പ്പോട്ടെടുക്കണ്ടവരക്കെ നമ്മൾ പാസ്പ്പോട്ടിന് അപ്ലൈ ചെയ്യണം എന്നിട്ട് നമ്മൾ പോകുന്നതിന് മുമ്പ് എന്തായാലും പാസ്പ്പോട്ട് കിട്ടും അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ആധാർ കാഡ് അതുപോലെ ബാ ബാങ്ക് പാസ് ബുക്ക് അതുപോലെ റേഷൻ കാഡ് ഇത് ഒക്കെ ഒർജിനലുവായിട്ട് വേണം ചെന്നിട്ട് നമ്മൾ പാസ്പ്പോട്ടോഫീസിൽ ചെന്നിട്ട് വേണം നമ്മളപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് അ അക്ഷയ വഴിയും നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം ആപ്ലിക്കേഷൻ കൊടുക്കുമ്പം നമുക്കൊരു ഡേറ്റിടും അവർ ഇന്ന ദിവസം നമ്മൾ വരണം ആ ഇന്ന ദിവസം ഇന്ന ടൈമിൽ ചെല്ലണം എന്ന് നമ്മളോട് പറയും അപ്പം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റ്സുമായിട്ട് അവിടെ ചെല്ലുക അവിടെ ചെന്ന് അവരെ കണ്ടാൽ മതി അപ്പം ഒരു കാര്യം നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ ആധാർക്കാഡിലെ പേരും അതുപോലെ നമുക്ക് ബാങ്ക് പാസ്ബുക്കിലെ പേരും അതുപോലെ റേഷൻ കാഡിലെ പേരും ഒക്കെ നമ്മുടെ എസ് എസ് എൽ സി ബുക്ക് അതിലെ ഒക്കെ പേര് എല്ലാം എന്താണ് സേയിമായിരിക്കണം അതുപോലെ നമ്മുടെ അഡ്രസ്സുവക്കെ എന്തായിരിക്കണം സെയിമായിരിക്കണം ഇനി നമ്മുടെ അഡ്രസ്സോ ഇങ്ങനുള്ള കാര്യങ്ങൾളക്കെ എന്തെങ്കിലും ഒക്കെ തെറ്റ് പറ്റുവാണെങ്കിൽ നമുക്കതൊരു തിരുത്താനുള്ളൊരു അവസരവും കൂടി ഉണ്ട് അതായതിപ്പം നമ്മുടെ പേരിൽ തന്നെ എന്തെങ്കിലും മാറ്റം വരുത്തുവാണെങ്കിൽ വ വരുത്തേണ്ടി വരുവാണെങ്കിൽ നമ്മളിപ്പം ന്യൂസ് പേപ്പർലക്കെ പരസ്യം കൊടുക്കണം അതായത് രണ്ട് ന്യൂസ്പ്പേപ്പറിൽ പരസ്യം കൊടുത്ത് നമ്മുടെ പേരിങ്ങനെ ചേഞ്ച് ചെയ്യുവാണെന്നുമ്പറഞ്ഞ് ന്യൂസ് പേപ്പറിൽ പരസ്യം കൊടുത്തിട്ട് വേണം ആ പേപ്പർ കട്ടിങ്ങുവായിട്ട് വേണം നമ്മളവിടെ ചെല്ലാൻ പാസ്പ്പോട്ടോഫീസിൽ ചെല്ലാൻ വേണ്ടി

അത്രയും ഇതായിട്ടുള്ള ഒരു ഇതാണ് സംഭവമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ പാസ്പ്പോട്ടെന്ന് പറയുന്നത് അത്രയും കറക്റ്റായിട്ട് ഭയങ്കര അക്യുറേറ്റായിട്ടെല്ലാ കാര്യങ്ങളും നോക്കി ആണ് നമുക്കെന്ത് തരുന്നത് പാസ്പ്പോട്ട് തരുന്നത് അതുണ്ടെങ്കിൽ മാത്രമേ നമുക്കെന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ വിദേശത്തേക്കക്കെ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും പാസ്പ്പോട്ട് ഉള്ളവർ അവരുടെ ഡേറ്റ് കഴിഞ്ഞെങ്കിൽ അത് പുതുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ പാസ്പ്പോട്ടില്ലാത്തവരെന്തെയ്യണം അതിന് വേണ്ടീട്ട് നമ്മളപേക്ഷ കൊടുക്കണം അപേക്ഷ അക്ഷയ വഴിയോ എങ്ങനെ വേണേലും കൊടുക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് ചെല്ലുന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചെ ചെല്ലണം അതേപോലെ നമ്മുടെ ഇത്രേം ഡോക്ക്മെൻറ്റ്സ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാകണം എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഇത് തരത്തുള്ളു പാസ്പ്പോട്ട് കിട്ടത്തുള്ളു അപ്പം ഈ കാര്യങ്ങളക്കെ ഉണ്ടെങ്കിൽത്തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പാസ്പ്പോട്ട് ഇഷ്യൂ ചെയ്ത് കിട്ടുന്നതാണ് ചിലപ്പം പോസ്റ്റൽലായിരിക്കും വരുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെന്ന് കളക്റ്റ് ചെയ്ത് എൻ്റെതായിട്ട് വരും അപ്പം നമ്മളുടെ യാത്ര മുൻകൂട്ടി കണ്ട് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ ഇതക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കേണ്ടതാണ് കാരണം നമുക്കിപ്പൊരു യാത്രയ്ക്ക് വേണ്ടീട്ട് മാത്രമല്ല പാസ്പ്പോട്ട് വേണ്ടത് ഇനിയും നമുക്ക് ചിലപ്പോൾ പോവുന്ന സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെട്ട് നമ്മുടെ യാത്രയിൽ ഒരുപാട് സന്തോഷങ്ങളക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വേറെ സ്ഥലത്തൊക്കെ വിസിറ്റ് ചെയ്യണമെന്ന് തോന്നിയാൽ നമുക്ക് പോകേണ്ടി വരും അപ്പം വേറെ ഒരു യാത്രയ്ക്കും പോകാൻ വേണ്ടീ ഉള്ള തയ്യാറെടുപ്പോട് കൂടി ലൈസൻസെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഐ ഡീ ക്കാഡ് തന്നെയാണ് അപ്പം അത് എല്ലാവരും എടുക്കാൻ ശ്രദ്ധിക്കുക അതിൽ പുതുക്കെണ്ടവർ അത് പുതുക്കുക ഒന്നുല്ലെങ്കിൽ അക്ഷയെ ചെന്ന് പുതുക്കുക അല്ലെങ്കിൽ നേരിട്ട് പാസ്പ്പോട്ടോഫീസിൽപ്പോയി പുതുക്കണം കേട്ടൊ